മാധ്യമങ്ങളിലും വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും മലയാള ഭാഷയ്ക്ക് ഇപ്പോൾ മതിയായ സ് പ്രാധാന്യം കിട്ടുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എന്നാൽ പോലും ഇപ്പോൾ ഇപ്പൊൾ ഒരുപാട് ഇം ഇം ഇംഗ്ലീഷും മറ്റു ഭാഷകളും കൾക്കുമാണ് പൊതുവെ എല്ലാവരും പ്രാധാന്യം നൽകുന്നത് ഇപ്പൊൾ ഒരുപാട് സ്കൂളുകളുണ്ട് ഇപ്പൊൾ ചെറിയ കുട്ടികൾ ഫസ്റ്റ് തന്നെ സ്കൂളിലേക്ക് ചേർത്തുന്നത് തന്നെ ഇംഗ്ലീഷ് ഭാഷകൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ഏത് സ്കൂളിലാണോ ആ സ്കൂളിലേക്കാണ് എല്ലാ കുട്ടികളെയും കൊണ്ട്പോയി ചേ കൊണ്ട്പോയി ചേർത്തുന്നത് അവരുടെയൊക്കെ ധാരണ എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചു ഒരുപാട് മറ്റുള്ള ഭാഷകൾ സംസാരിക്കുന്ന സ്ഥലത്തേക്കും മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോയി പഠി പോയി ജോലി ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയാണ് ഇപ്പോൾ പലരും വിദ്യാഭ്യാസത്തെ നോക്കി കാണുന്നത് എന്നാൽ പോലും ഇന്ന് മാതൃഭാഷ പറയേണ്ട സ്ഥലത്ത് ഇംഗ്ലീഷ് ഭാഷകൾ മുന്നിട്ട് നിൽക്കുകയാണ് പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സമ് വിദ്യാഭ്യാസ മേഖലകളിലും എന്നാൽ പോലും മലയാള ഭാഷയ്ക്ക് പ്രാധാന്യം നൽകുന്നുണ്ട് ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും തന്നെ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും തന്നെ ഇപ്പോൾ ഒരുപാട്